അപ്പോൾ കേരളത്തില് വ്യവസായം നേരിടുന്ന വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളൊക്കെ ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്ന ഭൂമികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അവടേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെള്ളം കിട്ടാത്ത അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ കൃഷിയെ എന്താ പറയുക അപ്പം ആ കൃഷിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഉപേക്ഷിക്കുക അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ എത്തുക അപ്പോൾ ഇവിടെ തന്നെ നമ്മടെ ഒരു നമ്മുടെ പറമ്പിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് നമ്മള് ഈ പ്രാവശ്യം കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ടും എന്താ പറയുക അപ്പം അതുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ടും കൃഷിയും കാര്യങ്ങളൊന്നും ആരും എടുക്കാത്തത് പിന്നെ അതായത് ഇപ്പം നമ്മള് കൃഷിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നെല്ലിന് മതിയായിട്ടുള്ളൊരു വില ലഭിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമ്മള് അത്രയും കഷ്ട്ടപ്പെട്ട് ഇത് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ മതിയായിട്ടുള്ളൊരു ല വില ഇല്ലാത്തത് കൊണ്ടക്കെയാണ് ഭയങ്കരയിട്ട് പ്രശ്നം അപ്പം നമക്ക് നല്ല രീതിലൊള്ള നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഒക്കെയാണ് കൂടുതലായിട്ടും എല്ലാവരും ഈ കൃഷിയിൽ നിന്നിട്ട് വിട്ട് പോകുന്നത് അതുകൊണ്ടെന്നൊക്കെ പറയാം പിന്നെ തൊഴിലാളികള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാലിപ്പം ഇവിടെ ഇല്ല ഇപ്പോൾ എല്ലാവരും പഠി പഠിക്കുന്ന കുട്ടികള് അല്ലങ്കിൽ നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് തൊഴിലാളികള് ഇപ്പോൾ എവിടേയും ഇല്ല അതും ഒരു കാരണമാണ്